നമ്മുടെ ഗ്രാമത്തിൽ പലരീതിയിലുള്ള വ്യവസായങ്ങൾ ഉണ്ട് അതായത് ചട്ടി ഇണ്ടാക്കുന്ന ആളുകൾ അതായത് മണ്ണിൻറെ ചട്ടി നിർമിക്കുന്ന ആൾക്കാരുണ്ട് മരം കൊണ്ട് ഫർണിച്ചറുകൾ മറ്റ് സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് മറ്റ് പല നിർമ്മാണ മേഖലയിലും അതായത് സിമൻറ്ൻറെ കല്ലുകൾ തുടങ്ങിയ കുറെ മേഖലകളുണ്ട് പലചരക്ക് കടയുണ്ട് അങ്ങനത്തെ പല രീതിയിലുള്ള ബിസിനസുകളും ഇവിടെ നടന്നു പോകുന്നുണ്ട്